മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട് എന്നു വെച്ചാൽ മറ്റുള്ളവർക്കറിയാൻ മേലാത്തതെന്നു വെച്ചാൽ നമ്മളിപ്പം ചൂണ്ടയിടുക ചൂണ്ടയിട് ചൂണ്ടയിടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ചൂണ്ടയുടെ അറ്റത്തു ഞാൻ പറഞ്ഞതു പോലെ ഈ പറഞ്ഞതു പോലെ മാവ് മാവ് മുക്കി ഇടുന്നവർ മാവ് മുക്കി ഇടുക അല്ലെങ്കിൽ പിന്നെ നാടൻ വിരകൾ മുക്കി ഇങ്ങനെ കോർത്തിടുന്നവരുണ്ട് അപ്പം നമ്മളിപ്പം മീൻ പിടിക്കാനായിട്ടു നമ്മൾ ഒരു നല്ല ഏരിയ നോക്കിയാണ് അനക്കമൊന്നുമില്ലാതെ ഏരിയകളിലൊക്കെ ആണ് സാധാരണ മീൻ പിടുത്തത്തിനു പോകുന്നത് കാരണം എന്തെങ്കിലും അനക്കമൊക്കെയുണ്ടെങ്കിൽ മീൻ വരാറില്ല നമ്മളിപ്പോൾ നമ്മുടെ സംസാരം കേട്ടാൽ ചിലപ്പം മീൻ വരാറില്ല വരാറില്ല പിന്നെ നമ്മളിങ്ങനെ ചൂണ്ടയിടുമ്പോഴത്തേക്കിന് നമ്മളിങ്ങനെ ചൂളമടിക്കണം ചൂളമടിക്കുമ്പോഴത്തേന് ചിലപ്പോളിങ്ങനെ ആ സൗണ്ട് കേട്ടിങ്ങനെ പതുക്കെ മീൻ വരാറുണ്ട് അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെ നമ്മളിട്ട് കൊടുക്കും നേരെ തിന്നാൻ വേണ്ടിയാണത് വരുന്നത് അപ്പം നമ്മൾ ഈ ചൂണ്ടയുടെ നടുഭാഗം കൊണ്ടൊരു പൊങ്ങൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടതായത് നമ്മളെന്തെങ്കിലും വെള്ളത്തിൽ പൊങ്ങി കിടക്കത്തക്ക രീതിയിലെന്തെങ്കിലും അങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ ഇങ്ങനെ മീൻ ചൂണ്ടയിട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ഈ മത്സ്യം അത് ഒന്ന് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ഈ പൊങ്ങനങ്ങും ഈ പൊങ്ങാനങ്ങുമ്പോഴത്തേക്കിന് ഈ പൊങ്ങിങ്ങനെ മുന്നോട്ടു പോകുന്നതിനനുസരിച്ചാണ് ഈ മീനതേലിങ്ങനെ തിന്നുന്നത് അപ്പം നമ്മളിങ്ങനെ അതനുസരിച്ച് നമ്മൾ നമ്മുടെ ചൂണ്ട പിടിച്ചിങ്ങനെ വലിക്കുന്നത് വലിക്കുമ്പോഴത്തേക്കിന് ആ ചൂണ്ടയിലാണ് മീനുടക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ മീൻ ചൂണ്ടയുടെ പിന്നെ ഈ വലകളിൽ വലകളിലൊക്കെ മീൻ പിടിക്കുമ്പോഴത്തേക്കിനിങ്ങനെ എന്തെങ്കിലും സൗണ്ടൊക്കെ ഉണ്ടാക്കി ഒരു രസത്തോടെ മീൻ ഓടി പോകുമ്പോഴത്തേക്കിന് ഇവിടെ വലയിലൊക്കെ അങ്ങനെയൊക്കെ മീൻ വന്നു കയറാറുണ്ട് അങ്ങനെ പിടിക്കുന്നവരുണ്ട് പിന്നെ ഈ വലകളിൽ കൊച്ചു വള്ളത്തിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇങ്ങനെ പോയി മീൻ പിടിക്കാറുണ്ട് അങ്ങനെ അതും വീശുന്നവർ കാണും പിന്നെ ഈ ഇടക്ക് വലകളിലൊക്കെ ഇങ്ങനെ ഇട്ട് അതായത് ഇപ്പം രണ്ടു മൂന്നു മണിക്കൂറൊക്കെ ഇങ്ങനെ വലകളിങ്ങനെ പ പ പത്തും മുപ്പതും നാൽപ്പതും മീറ്ററൊക്കെ ആയിരിക്കും വലകളെ അപ്പതിങ്ങനെ ഒരു വശത്തു നിന്ന് മറ്റുള്ള വശത്തേക്കിങ്ങനെ മുന്നോട്ടു പോയ് പോയ് പോയി അങ്ങനെ ഇട്ട് ഒരു നാലഞ്ചു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കിന് ആ വലകളിൽ ഇങ്ങനെ മീൻ മത്സ്യങ്ങൾ വന്ന് വരാറുണ്ട് അപ്പം നമ്മൾ സമയം നിശ്ചിത സമയം കഴിയുമ്പോൾ നമ്മൾ ചെന്ന് ആ മീനെടുത്ത് വലയെടുത്ത് ഇങ്ങനെ പൊക്കി വള്ളത്തിൽ കയറ്റി ഇങ്ങനെ കൊണ്ടു വരികയൊക്കെയാണ് ചെയ്യുക അങ്ങനെയൊക്കെയാണ്